എൻ്റെ അഭിപ്രായത്തിൽ ദീർഘദൂര ബൈക്ക് യാത്രകളിൽ ആരോഗ്യം നിലനിർത്താൻ പ്രധാനമായിട്ടും വേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക പ്രത്യേകം ആയിട്ടും ചൂടുള്ള സമയങ്ങൾ ഉച്ച സമയത്തെക്കെയാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇടയ്ക്ക് എവിടെ എങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ യാത്ര ചെയ്യുമ്പോൾ സെയിം പോസ്ച്ചർ സെയിം ഒരേ രീതിയിലാണ് ഒരുപാട് സമയം നമ്മൾ ഇരിക്കുന്നത് പ്രധാനമായിട്ടും ദീർഘ ദൂര യാത്രകൾ ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ടുതന്നെ അത് കുറക്കുന്നതിനു വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തുകയും ഒന്ന് ഇടയ്ക്ക് എവിടെ എങ്കിലും ഇറങ്ങുക മുഖം കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഉറക്കം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ഉറക്കം വരുന്ന അവസരങ്ങളിൽ ദയവായി ഉറക്കം ഉള്ളപ്പോൾ വണ്ടി ഓടിക്കാതിരിക്കുക ഒന്ന് ഇറങ്ങി മുഖം കഴുകുകയോ അല്ലെങ്കിൽ ഒന്ന് വിശ്രമിച്ചിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് തന്നെ നമ്മളെ കൊണ്ടെത്തിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നടുവേദന തോള് വേദന തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വെള്ളം കുടിക്കുക ദൂര യാത്രകൾ പോകുമ്പോൾ ദൂരയാത്രകൾ പങ്കെടുക്കുമ്പോഴത്തേക്കും ഇടയ്ന്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ട് പോവാം ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി വിശ്രമിച്ചിട്ട് ഒക്കെ പോവുക അടിപ്പിച്ചു ഒരേ സമയം ഒരുപാട് ദൂരം വണ്ടി ഓടിക്കാതിരിക്കുക പിന്നെ അടുത്ത് ചായ ചായക്കട ഉണ്ടെങ്കിൽ ചായ കുടിക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ആരോഗ്യം ഒന്ന് സംരക്ഷിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആരോഗ്യത്തെ യാത്രകൾ ബാധിക്കാറുണ്ട് പ്രധാനമായിട്ടും നടുവിന് കൈ കൈ തരിപ്പ് കൈ വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാഹനം ഓടിക്കുന്നത് വഴി ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് അത് മാറ്റിനിർത്താനായിട്ട് അത് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ മേലെ പറഞ്ഞ കാര്യങ്ങള് ഒരു പക്ഷേ ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നെ സംബന്ധിച്ച് ബൈക്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചില സമയങ്ങളിൽ ഞാനായിരുന്നാലും വണ്ടി നിർത്താതെ ആ ഒരു ഒഴുക്കിലോട്ട് അങ്ങ് വണ്ടിയോടിച്ചു പോകാറുണ്ട് പക്ഷെ അവസാനം നിർത്തിക്കഴിഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് വാഹനം ഓടിക്കാതെ നിർത്തി കുറച്ച് സമയം ഒന്ന് ശരീരം കൈയും കാലും ഒക്കെ പൊക്കി വണ്ടി മാറ്റി നിർത്തി കൈയും കാലും ഒക്കെ പൊക്കി ഒന്ന് ബോഡിക്കൊരു റിലേസാഷൻ കൊടുത്തിട്ട് വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടും ബൈക്കോടിക്കുന്നത് എന്തുകൊണ്ടും ഉചിതം ആയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു